വിരമിച്ചവര്ക്കും മുതിര്ന്നവര്ക്കും റ്റി വി ഇന്റെര്നെറ്റും വളരെ അത് ഉപയോഗപ്രധമാണ് കാരണം റ്റി വിയാണെങ്കില്ക്കൂടി വളരെയധികം മാനസികുല്ലാസം തരുന്ന രീതിയിലുള്ള പരിപാടികള് ടീ വിയിലുണ്ട് പ്രായമായവര്ക്കും കട്ടിലിൾ കിടക്കുന്നവര്ക്കുമൊക്കെ അവര്ക്ക് മാനസികമായിട്ട് ഉല്ലാസം നല്കുന്ന കാര്യങ്ങള് ടീ വിയില് നിന്നും അവര്ക്ക് കാണാനും കേള്ക്കാനും സാധിക്കും ഈ സാങ്കേതികവിദ്യകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലെ ആള്ക്കാര്ക്ക് ആണെങ്കില്ക്കൂടിയും അവര്ക്ക് വളരെയധികം ബോറടിക്കുന്ന ലൈഫാണ് ഈ പ്രായമായ ടൈം അപ്പോൾ അവര്ക്ക് ടീ വിയോടുള്ള പിള്ളാരുടെ പരിപാടികളായാലും മുതിര്ന്നവരാലും സിനിമയക്കെയാണെങ്കിലും കാണുകയോ അങ്ങനെ സമയം കടന്നുപോകാൻ അവര്ക്ക് സാധിക്കും അതുതന്നെയല്ല പള്ളിയിലേക്കാണെങ്കിലും പോകാന് പറ്റാത്തവര്ക്ക് പൊന്നമ്മമാര്ക്ക് വീട്ടിൽക്കാണാം അവര്ക്ക് ഷാലോം അങ്ങനെയുള്ള ടെലിവിഷന് ചാനലുകളിൽക്കൂടി ഇരുന്ന് അവര്ക്ക് കാണാം സിനിമ സിനിമ തന്നെയല്ല സോറി ഈ പരിപാടി കാണാനും വിശുദ്ധ കുര്ബാനയില് പങ്കെടുക്കാനും ജപമാല പ്രാര്ത്ഥനകളെല്ലാം ഈ ചാനൽ ഗുഡ്നെസ്സ് ഷാലോം റ്റി വി ചാനലുകൾ ഉള്ളതുകൊണ്ട് അവര്ക്കതില്കൂടിയും കുര്ബാന കൂടാനും കാണാനും ഒക്കെ സാധിക്കുന്നു പിന്നെ മൊബൈല് ഫോണ് മൊബൈല് ഫോണാണെങ്കില് കൂടി യൂട്യൂബ് ഫേസ്ബുക്ക് വാട്ട്സപ്പ് തുടങ്ങിയ ഇന്റെര്നെറ്റ് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ഫോണിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ദൂരെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ആണെങ്കിലും കൂട്ടുകാരെയൊക്കെ കാണാനും അവരോട് സംസാരിക്കാനും ഇവര്ക്ക് ഫോണിൽക്കൂടി സാധിക്കും പിന്നെ മാനസിക ഉല്ലാസം തന്നെ ഇവര്ക്ക് എന്തൊക്കെ ചെയ്യാന് പറ്റുന്നൊ അതുമൊക്കെ മറ്റുള്ളവരുമായിട്ടൊന്നു ഷെയറ് ചെയ്യണം അതായത് യൂട്യൂബ് വഴി ഒരു ചാനല് തുടങ്ങി അവര്ക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം അവരെ അവരുടെ പാട്ട് അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാമല്ലോ ഇപ്പോഴത്തെക്കാലത്ത് നമുക്ക് കാണാന് സാധിക്കുന്നുണ്ടല്ലോ ഫോണിൽക്കൂടി അപ്പം നമുക്കങ്ങനെ ഉപയോഗിക്കാം പിന്നെ അവര്ക്കങ്ങനെ ഉപയോഗിക്കാം ഫേസ്ബുക്ക് വഴിയാണെങ്കിലും പണ്ടുള്ള ഫ്രണ്ട്സുകൾ അങ്ങനെയുള്ള ആള്ക്കാരെയൊക്കെ തപ്പിയെടുത്ത് അവര്ക്ക് ഫോണ് നമ്പറാണെങ്കിലും കളക്ട് ചെയ്യാന് സാധിക്കുന്നു ഇന്റര്നെറ്റ് ഉള്ളതുകൊണ്ട് ഫേസ്ബുക്ക് വഴി പിന്നെ പാട്ടു പാടുന്നവര്ക്കൊക്കെ ആണെങ്കിൽക്കൂടി ഒരു പാട്ടു പാടി യൂട്യൂബിലിട്ടാൽ അവർ വൈറലാകുന്നു അല്ലെങ്കില് ഫേസ്ബുക്കിലിട്ട് അല്ലെങ്കിൽ റീല്സിട്ട് വൈറലാകുന്ന അപ്പനും അമ്മമാരും ഇഷ്ടംപോലെയുണ്ട് അതുകൊണ്ട് അവര്ക്കുമൊരു മാനസികമായിട്ട് എഞ്ചോയ്മെന്റ് നടത്തുന്ന ഒന്നാണ് ഈ റ്റി വിയും ഇന്റര്നെറ്റുമൊക്കെ സ്റ്റാര് സിങ്ങറ് മുതല് ഇപ്പപ്പോലുള്ള പരിപാടിയിൽ കാണുമ്പം ആര്ക്കാണെങ്കില് കൂടിയും ഒരു ആ പാട്ടു കേള്ക്കാനും അത് ലയിച്ചിരിക്കാനും അതൊരു എഞ്ചോയ്മെന്റാണ് വിരമിച്ചും വിരമിച്ചവര്ക്കും മുതിര്ന്നവര്ക്കും റ്റി വിയും ഇന്റര്നെറ്റുമൊക്കെ വളരേയധികം ഉപയോഗപ്രദമാകുന്നത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഫോണാണെങ്കില്ക്കൂടി ഇവര്ക്ക് ഈ ഫോണില്കൂടി ആണെങ്കിലും ഓരോ കാര്യങ്ങളും ബൈബിളിന്റെ കാര്യങ്ങളും ഒക്കെ ബൈബിള് കയ്യിലില്ലെങ്കില്ക്കൂടി ഇന്റര്നെറ്റിൽക്കൂടി ഇവര്ക്ക് ചെയ്യാന് സാധിക്കും